ആഹ് ഹലോ കേരളത്തിനെ സംബന്ധിച്ചെടുത്തോളം കേരളത്തിൻ്റെ മെയിൻ ഫെസ്ടിവൽസ് എന്നുപറയുന്നത് ഓണം വിഷു ക്രിസ്മസ് ഉത്സവങ്ങൾ തൃശൂർപ്പൂരം വള്ളംകളി അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെയാണ് ഓരോ

ആഹ് ഉത്സവങ്ങൾ ഉത്സവങ്ങളെന്ന് പറയുന്നത് ഓരോ അമ്പലത്തിൽ നടക്കുന്ന ഉത്സവങ്ങളാണ് അതിനെ വെച്ച് നോക്കുമ്പം ഏറ്റവും കൂടുതൽ ഫേമസ് ആകുന്നത് തൃശൂർപ്പൂരം ആണ് ഉത്സവങ്ങൾ മാത്രമല്ല പള്ളിപ്പെരുന്നാളുകൾക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് നമ്മുടെ കേരളത്തിനുണ്ട്

കുടമാറ്റവും അങ്ങനെ നിരവധി ഇത് ഉള്ളതുകൊണ്ടും പടക്കം അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഉണ്ട് വളരെ ഭംഗിയേറുന്നൊരു ആഘോഷമാണത് പിന്നെ ഈ ഓണം വിഷു സമയത്തൊക്കെ ഓണത്തിൻ്റെ സമയത്തൊക്കെ ഉള്ള പുലികളികള് വടംവലി അങ്ങനെ നിരവധി പരിപാടികളുണ്ട് കൂടുതലും ഭംഗിയൊക്കെ ആയിട്ട് വള്ളംകളിയൊക്കെ ഈ ഓണത്തിൻ്റെ സമയത്താണ് കൂടുതലും നടക്കാറ് വള്ളംകളിയൊക്കെ ഒരു മത്സരമായിട്ടു തന്നെ നമ്മുടെ ഈ സമയത്ത് ഈ ഓണസമയത്ത് ആൾക്കാര് ആഘോഷിക്കാറുണ്ട് അതൊരു ആവേശമായിട്ട് ഒരു ആരവമായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ആഹ് നിറച്ചു ജനങ്ങളായിരിക്കും പുറത്ത് കാണുന്നതുപോലെയല്ല ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ക്രെയ്സുള്ളൊരു ഒരു ആഘോഷം തന്നെയാണ് ഈ വടംവലി പുലികളി എന്നൊക്കെ പറയുന്നത് അതൊക്കെ കാണണമെങ്കിൽ കേരളത്തിലേക്ക് തന്നെ വരണം ആഹ് ഓക്കേ ഓരോ കൾച്ചർ അനുസരിച്ച് ഓരോ പ്രോഗ്രാംസുണ്ട് ഫോർ എക്സാമ്പിൾ ഈ തെയ്യം മാർഗ്ഗംകളി പിന്നെ കഥകളി അങ്ങനെയുള്ള ഓരോരോ ഓരോരോ കാര്യങ്ങളൊക്കെയുണ്ട് അതെല്ലാം കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് ആഹ് ഒക്കേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തായാലും കേരളം വിസിറ്റ് ചെയ്യണം കേരളത്തിൻ്റെ ഈ ഓരോ പ്രോഗ്രാംസ് എല്ലാം കാണണം അറിയണം എന്നാലേ അതിൻ്റെയൊരു ഭംഗി എത്രത്തോളം ഉണ്ടെന്നു നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ആഹ് ആഹ് ഓക്കേ